നമ്മുടെ പ്രദേശത്തെ വിദ്യാഭ്യാസത്തെ സ്വാധീനിച്ച ഒരു പരിപാടിയാണ് പഠനോത്സവം എന്ന് പറഞ്ഞു സ്കൂളുകളിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം അത് എന്താണ് എ സ്കൂളായിരിക്കുന്ന സാഹചര്യത്തിലെ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെടാനും അവിടത്തെ പ്രത്യേകതകളെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ കൾച്ചറൊക്കെ മനസ്സിലാക്കാനും ഒക്കെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് സ്കൂളിന് പുറമേ നിന്നുള്ളവരും ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആണല്ലോ അതിലൂടെ നടക്കുന്നത് അപ്പം കുട്ടികൾക്ക് അവർ സോഷ്യലി എന്താണ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടാനും അവരുടെ സൊസൈറ്റി ആയിട്ടുള്ളൊരു റിലേഷനി വളർന്ന് വരുവാനും ഒരുപാട് നല്ല വാല്യൂസൊക്കെ ഉണ്ടാകാനായിട്ട് അത് കാരണമായിട്ടുണ്ട്